ഞാനിപ്പോൾ യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മതപരമായ സ്ഥലങ്ങൾ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടമാണ് പള്ളികൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മതപരമായ സല പള്ളികൾ നമ്മളിപ്പോൾ നേർച്ച ചെയ്ത പള്ളികളിലൊക്കെ പോകാൻ നല്ല ഇഷ്ടമായിരിക്കും പിന്നെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ എല്ലാരെയും കാണാനും ഇതൊക്കെ നല്ലൊരു എഞ്ചോയ് ആണ് എല്ലാവർക്കും പിന്നെ യാത്ര ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാകില്ല എല്ലാവർക്കും യാത്ര നല്ല ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടതാണ് പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നല്ല വണ്ണം സ്ഥലങ്ങളും കാണാം എല്ലാം കാണാം കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പോ പോകാനൊക്കെ കുറച്ച് മടിയുവാന്ന് ഒരു കുട്ടികളായാൽ പൊ പോകാത്തവരുണ്ട് വീട്ടിലിരിക്കുന്നവരുണ്ട് പ്ച്ച് കറങ്ങാൻ കറങ്ങാൻ പോകുന്ന ആൾക്കാരുമുണ്ട്